ഹലോ ഇത് ക്യാബ് ഡ്രൈവർ അല്ലെ എനിക്കൊന്നു മൂന്നാറുപോണമായിരുന്നു ആ അപ്പോൾ വയനാട്ടീന്നാണ് പോകേണ്ടത് മാനന്തവാടിന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് അപ്പൊ എത്ര രൂപയാവും മൂന്നാർ വരെ പോവാന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അതായത് എനിക്കിപ്പോ അവിടെ പോയിട്ടൊന്ന് സ്റ്റേ ചെയ്യണം രണ്ട് മൂന്ന് ദിവസത്തെ ഒരിതുണ്ട് രണ്ട് ദിവസം അവിടെ നിൽക്കേണ്ടി വരും അപ്പോൾ നിക്കാൻ ഉള്ളത് നിക്കാനൊക്കെ പറ്റില്ലേ അവിടെ ഓക്കെ അപ്പോൾ എവിടെയാ സ്ഥലം ഇത് എവിടെയായിരുന്നു തൃശ്ശൂരാണല്ലേ ഓക്കെ ഓക്കെ വാങ്ങും അല്ലെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ എനിക്കൊന്ന് മാനന്തവാടിയിലേക്ക് ഒന്ന് വരുമായിരുന്നോ ഇന്ന് പോരെ നാളെ രാവിലെ ആവുമ്പഴേക്കും എത്തുവായിരിക്കും അപ്പോൾ ഇവിടെ വന്നിട്ട് എന്നെ മാനന്തവാടി ഞാൻ ഇവിടെ ഹോട്ടൽ റോളെക്സിലാണ് താമസിക്കുന്നത് അതെ അപ്പോൾ അവിടെ വന്ന് എന്നെ ഒന്ന് പിക്ക് ചെയ്തിട്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടാവും വഴിക്കിന്ന് കേറാന് അപ്പൊ അവരെയും കൂട്ടീട്ട് നേരെ മൂന്നാർക്ക് പോവാൻ വേണ്ടീട്ടായിരുന്നു ഓക്കെ അവിടെ ഇടക്ക് വഴിക്ക് നിർത്തി ഒക്കെ തരില്ലേ ഫുഡ് കഴിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഓക്കെ എസി ഉണ്ടോ വണ്ടീല് അതെ ഓക്കെ ഓക്കെ പിന്നെ എന്തുവെച്ചാല് അവിടെ കുറച്ച് നേരം സ്റ്റേ ഒക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ അതൊന്നും പ്രശ്നം ഇല്ലലോലേ ഏത് പതിനായിരം രൂപയാ അതെ അവിടുന്ന് കുറച്ച് വേറെ കുറേ സ്ഥലങ്ങളിൽ ഒക്കെ പോകാനുണ്ട് അതായത് വട്ടവട അങ്ങനെ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് മൂന്നാറില് ആണോ ഏകദേശം എത്രവരുവായിരിക്കും

ഓക്കെ എന്നാ ശരി